ഞാൻ പിന്നെ ആമസോണിൽ ഓർഡർ ചെയ്ത് ഹോം തീയേറ്റർ നല്ല ഡെലിവറി ആയിരുന്നു അവരുടേത് സൂപ്പറായിട്ട് അവർ ഡെലിവറി ചെയ്ത് കാരണം എനിക്ക് ഭയങ്കര ഡെലിവറി തന്നെ സൂപ്പറായിരുന്നു നമുക്ക് പറ്റിയ അധികം ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല നല്ല പ്രൊഡക്ട് ആയിരുന്നു ഹോം തിയേറ്റർ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും എനിക്കിഷ്ടായി സുപ്പർ പ്രൊഡക്ട് ആയിരുന്നു കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ഇതാണ് എനിക്ക് കിട്ടിയത് ഭയങ്കരിഷ്ടായി നല്ല രീതിയിൽ നമുക്ക് പിന്നെ കുറേ കാലമായി ഹോം തിയേറ്റർ വെക്കണം ഹോം തിയേറ്റർ വെക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ നല്ല രീതിയിലുള്ള ഒന്ന് കിട്ടി ഭയങ്കര സന്തോഷം ഉണ്ട് അതുകൊണ്ട്